ആ ജോണ് ജോണല്ലേ ആ നമ്മുടെ ബിസിനസിൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിക്കാനായിരുന്നു ആ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പതിനാറ് കണ്ടെയ്നറ് കയറ്റി വിട്ടായിരുന്നല്ലോ ആ പതിനാറ് കണ്ടെയ്നറിൻ്റെ ബില്ല് അതിൻ്റെ പെയ്മെൻറ്റിൻ്റെ കാര്യം വല്ലതും സംസാരിച്ചായിരുന്നോ ഒന്നും പറഞ്ഞില്ലേ അത് അവർക്ക് ഒരു മെയിൽ അയച്ച് മെയിൽ അയച്ചിട്ട് ചോദിര് അവർ നമ്മുടെ കണ്ടൈയ്നറ് നോക്കിയോ ചെക്ക് ചെയ്തോ അതോ ഓപ്പണായോ അതിനകത്ത് അവർക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് വല്ലതും ഉണ്ടോന്നൂടെ ഒന്ന് ചോദിക്കണം ഒരു മെയിൽ അയച്ചുകൊടുത്താൽ മതി അത് അയച്ചു കൊടുത്തിട്ട് അത് ചോദിച്ചിട്ട് ആ അത് അവർക്കവിടെ സാറ്റിസ്ഫൈഡ് ഓക്കെയാണെന്ന് പറയാണന്നുണ്ടെങ്കിൽ പറയണം നമുക്ക് ഡിലെ ആകാതെ അതിൻ്റെ പെയ്മെൻറ്റ് ഇങ്ങ് തരാൻ പറയണം നമുക്കിനി അടുത്ത കണ്ടെയ്നറ് ഉടനെ നമുക്ക് പർച്ചേഴ്സ് ചെയ്യാനുണ്ട് ആ അടുത്തത് നമുക്ക് ഇവിടെ കാനഡയ്ക്ക് അയക്കണ്ടിയെ ആ അപ്പോൾ അത് അധികം താമസിക്കാതെ അത് നമുക്ക് അതിൻ്റെ പെയ്മെൻറ്റ് വേണം അത് നമ്മളിനി പർച്ചേഴ്സ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ചെയ്യണം നമ്മളെ ബാങ്കിലിപ്പോൾ എത്ര ബാലൻസുണ്ട് എല്ലോ നമ്മുടെ ആ മറ്റേ ആ കഴിഞ്ഞയാഴ്ച കൊടുത്തയാ പാർട്ടിയെ ഒന്ന് വിളിച്ചേ അവരിതുവരെ പെയ്മെൻറ്റ് തന്നിട്ടില്ലല്ലോ ആ വർഗീസ് വർഗീസിൻ്റെ വർഗീസിൻ്റെ അത് കാ അത് ഏതാണ് അത് ഏതാണ്ട് ആ ഒരു മുക്ക് എഴുപത്തഞ്ച് ലക്ഷം കോടി ഒരു മുക്കാൽ കോടി എഴുപത്തഞ്ച് ലക്ഷത്തോളം ഉണ്ടല്ലോ കിട്ടാനുള്ളത് അത് അവർ റിമൈൻഡർ അയച്ചായിരുന്നോ അല്ല അവർക്ക് കംപ്ലെയ്ൻസ് ഒന്നും ഇല്ലല്ലോ ആ ഹാ ഹാ ആ അതെ അത് അത് ആ നമുക്കത് എല്ലാം കൂടെ മേടിച്ചു നമുക്ക് എന്താന്ന് വെച്ചാൽ രണ്ട് കോടി നമ്മുടെ ബാങ്കിലെ മറ്റ് മ മറ്റേ ബാങ്കിലേ നമ്മുടെ വേറൊരു ബാങ്കിലെ അക്കൗണ്ട് ആ ബാങ്കിൽ നല്ലയൊരു തു നല്ല പ അതിനകത്ത് പൈസ കാണുമല്ലോ ആ പിന്നെ നമ്മളെ പിന്നെ മാസത്തിലെ അവസാനമാണ് നമ്മൾ സ്റ്റാഫ് പെയ്മെൻറ്റിൻ്റെ കാര്യം കൂടി അതിനുള്ള പൈസ വെക്കണം അതിനുള്ള പൈസ വെച്ചിട്ട് ബാക്കിയുള്ള പൈസ പാർട്ടിക്കാർക്ക് കൊടുത്താൽ മതി നമ്മുടെ ഓഫീസ് എക്സ്പെൻസെസ് സ്റ്റാഫ് പിന്നെ ആരാ നമ്മളെ കൂട്ടത്തിലാർക്കാണ് നമ്മളെ സ്റ്റാഫിലാർക്കാ എന്തോ ഒരു അപകടം പറ്റി അതിനകത്ത് കുറച്ച് പൈസ അവർക്ക് മെഡിക്കൽ റിലീഫ് ആയിട്ട് വേണമെന്ന് അന്ന് പറഞ്ഞായിരുന്നല്ലോ അത് എത്രയാണ് ഒന്നര ലക്ഷമോ ഒന്നേകാൽ ലക്ഷോ വേണമെന്ന് പറഞ്ഞു അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ് അവർക്ക് അതൊരിപ്പോൾ തൽക്കാലം ഇപ്പം ഒരു അഡ്വാൻസായിട്ട് കൊടുക്ക് നമുക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യാം പിന്നെ അപ്പോൾ അത് ലോൺ അക്കൗണ്ട് ആയിട്ടായിരുന്നു ലോണെന്നു പറയുമ്പോൾ സാലറി അഡ്വാൻസ് ആ വൺ പോയിൻറ്റ് ഫ അതീ ആ പറഞ്ഞോ അതെ ഇൻ ഇൻ അതെ അത് ഇൻഷുറൻസിൻ്റെ ക്ലെയിം കിട്ടുവാണെങ്കിൽ പിന്നെ അവർക്ക് പൈസക്ക് ആവശ്യം വരുവോ ആ അത് കി അല്ല അത് ചെയ്യാം അത് ചെയ്യാം അത് ചെയ്യാം ഏതായാലും അബദ്ധം പറ്റിയതല്ലേ നമുക്കൊരു അവളെ ഇൻഷുറൻസ് ക്ലെയിം ക്ലിയർ ആവുകയാണെങ്കിൽ നമുക്കൊരു ഫിഫ്റ്റി തൗസൻറ്റ് റുപ്പീസ് കൊടുക്കാം എന്താ അപ്പോൾ പോരെ

ആ പിന്നെ വേറെ വെ ആ പിന്നെ മറ്റേ വേറെ വി ഒന്നുമില്ലല്ലോ എല്ലാവരും ഓഫീസിൽ എല്ലാവരും ഉണ്ടല്ലോ ആ ഞാൻ വിളിച്ചു പറയാം ഞാൻ വിളിച്ചു പറയാം ഞാൻ വിളിച്ചു പറയാം കാരണം നമുക്ക് ടൈം ടു ടൈം നമുക്ക് പെയ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ പറ്റില്ല നമുക്ക് മൂവി മുന്നോട്ടു മൂവ് ചെയ്യാൻ പറ്റത്തില്ല ശരി ആ ശരിയെന്നാൽ അത് അത് അത് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ആ ഓക്കെ ഓക്കെ ശരിയന്നാൽ